ഹലോ നമസ്കാരം സാറേ

എന്ത് വിശേഷം സാറിങ്ങനെ വലിയ വേറെ കുഴപ്പമില്ല സാറ് ഏതാണ്ടൊരു സ്ഥലമൊക്കെ ഇങ്ങനെ നോക്കുന്നുന്നൊക്കെ ഇങ്ങനെ കേട്ടു വല്ലോം കിട്ടിയോ സാറേ സാറ് ഏതാണ്ട് വലിയൊരു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനായിട്ട് സ്ഥലമൊക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു നമ്മൾ അതൊക്കെ ഞാൻ സാറ് പലരേം കോൺടാക്റ്റെ ചെയ്ത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാമല്ലോ അവരെല്ലാം പറഞ്ഞു സാറ് സാറ് ഞാനുമായിട്ട് ഇത്രേം ബന്ധം ഉണ്ടായിട്ട് നമ്മളെ വിളിക്കോ ഒന്നും ചെയ്തില്ല ഞാൻ പിന്നെ എൻ്റെ മര്യാദയ്ക്ക് സാറിനെ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ നമ്മളെയൊക്കെ മറന്ന് സാറ് സാറിന് വീ അതല്ല അല്ല എനിക്ക് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര വിഷമമായി സാർ സാർ സാറിപ്പോൾ താമസിക്കുന്നത് സാറിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ സ്ഥലമൊക്കെ ഞാനത് അറേഞ്ച് ചെയ്തതാണ് അപ്പം ഞാൻ വിചാരിക്കേം ചെയ്തു ഇനിയിപ്പോൾ എന്താണ് നമ്മളെ സർവീസ് വളരെ മോശമായിട്ടാണോ അങ്ങനെ വല്ലോം സാ സാറിനറിയാമല്ലോ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് വലിയ കടത്തിലൊക്കേണ് വലിയ കച്ചവടം ഒന്നും നടക്കുന്നില്ല അപ്പോൾ സാറിനെ പോലുള്ള ആൾക്കാരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് വല്ല നേട്ടവുമുള്ളൂ അല്ലാതെ അല്ലാതെ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് വിറ്റു കഴിഞ്ഞാൽ സാറിനറിയാലോ ഒന്നാമത് ഇപ്പോൾ എല്ലാവരും കരച്ചിലാണ് അതിൻ്റെടെക്ക് ഞങ്ങളുടെ കമ്മീഷനും വളരെ മോശമാണ് സാറിനെ പോലെയുള്ള കോടീശ്വരന്മാർ ആ മൂന്ന് പെർസെൻറ്റ് എന്നാലും എന്നാലും അതല്ല സാറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോടികൾ വരുമ്പോൾ മൂന്ന് ശതമാനം എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടും മറ്റേത് ലക്ഷങ്ങളാവുമ്പോൾ അതിൻ്റെ മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ അത്രയല്ലേ കുറവ് അപ്പോൾ അതുപോലല്ല സാറിന് ഒരു സ്ഥലം വാങ്ങിച്ചു തരുമ്പോൾ അതിൽ എൻ്റെ ആൾക്കാരുടെ ഇടയിൽ തന്നെ ഒരു നല്ലൊരു പേരാവും സാറിൻ്റെ സ്ഥലം വാങ്ങിച്ച് തന്ന സാർ അവിടെയൊരു ഷോപ്പിംഗ് കോംപ്ലസ പണിയും ഏ എന്നൊക്കെയുള്ള ഒരുതിൽ വരുമ്പോൾ

ആ ഞാൻ കല്ലും ഞാൻ ആ ഞാൻ ഞാൻ സ ഞാൻ സാറിന് മറ്റ്

അല്ല ഞാൻ സാ അല്ല സാറിന് ഈ പിന്നെ മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ സപ്ലൈ ചെയ്യുന്ന കല്ലുംപുറം സിബിച്ചൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ ഇലക്ട്രീഷ്യൻ ജോജി ഉണ്ടല്ലോ എല്ലാം വിളിച്ചു പറഞ്ഞു നടക്കുന്ന ആ പുള്ളി ആ പുള്ളിയൊക്കെ പറഞ്ഞാണ് ഞാൻ എൻ്റെയെടുത്ത് ചോദിച്ചു അത് പിന്നെ മറ്റേ നമ്മുടെ യേശുദാസ് സാറ് വലിയൊരു കോംപ്ലക്സ് വാങ്ങിയല്ലോ നിങ്ങളറിഞ്ഞില്ലെന്ന് ചോദിച്ചു കല്ലുംപുറം സതീശൻ പറഞ്ഞു ഞാൻ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെയോക്കെ കോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ സ്ഥലമെല്ലാം കച്ചോടം നടന്ന് കാണും നമ്മളെയൊക്കെ മറന്ന് എന്നുള്ളൊരു വിഷമത്തിലായിരിക്കാം

ആ ആ പിന്നെ ആ ബി ആ ബി എസ് എൻ എൽ തോമാസിൻ്റെയടുത്ത് ഒന്നും പറയല്ലേ അയാൾ പാരയാണ് കേട്ടോ ആ പുള്ളിടടുത്തൊന്നും പറയരുത് പിന്നെ ആ ആ പിന്നെ ജോണികുട്ടിടെത്തും പറയരുത് ജോണികുട്ടിയാണെങ്കിൽ നാടുനീളേ മൊത്തം പറഞ്ഞു നടക്കും ആ എന്നാൽ ശരി ഞാൻ വിളിക്കാം